മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അതിൽ കേരളം തന്നെയാണ് എച്ചവും ഏറ്റവും നല്ല മികച്ച ഭക്ഷണം കൊടുക്കുന്നത് കേരള സദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും നാവിൽ വെള്ളമൂറും കേരള സദ്യയെ ഇപ്പോൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഒരുപാട് മസാലകളും ഒരുപാട് വിഷാംശങ്ങൾ അടങ്ങുന്ന മസാലകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടു തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പോൾ എല്ലാവരും ഹോട്ടലിനെ ആശ്രയിച്ചാണ് പല വിഭവങ്ങളും വാങ്ങുന്നതും കഴിക്കുന്നതും ഒരുപാട് ആൾക്കാർ തെക്കും വടക്കുമായ രാജ്യത്തെയും സംസ്ഥാനത്തെയും ആ ഭക്ഷണത്തെ ഭക്ഷണത്തിനു വേണ്ടി ആശ്രയിക്കുന്നു അവിടെ ഉണ്ടാകുന്ന പാനി പൂരികളും ഷവർമകളും ആണ് ഇപ്പോൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഏറ്റവും വലിയ പ്രധാന ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഉണ്ടാക്കുന്ന ഒരുപാട് മസാലകളും ഒരുപാട് മറ്റു സാധനങ്ങളും ഒക്കെ മനുഷ്യ ശരീരത്തിന് വളരെയധികം മോശമാണ് എന്നിരുന്നാലും മനുഷ്യൻ ഇത് ഒരുപാട് വാങ്ങി കഴിക്കുകയും ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്